ആ ഹലോ

അതെ അതെ

അതെ അതെ പറഞ്ഞോളൂ

ആ ശരി ഈ ഈ ഞാൻ തന്നെയാണ് ഇവിടുത്തെ മുതലാളി പറഞ്ഞോ ചിന്ന പാർക്ക് തൃപ്തി എന്നു തന്നെയാണ് എൻ്റെ പേര് ആ പറഞ്ഞോ

അതെയോ ആ പറഞ്ഞോ നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും പിന്നെ അതായത് അഞ്ചാറ് ബോക്സ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ കഴിവിൻ്റെ അത്ര മാക്സിമം ഞാൻ വില കുറച്ച് തരും അഡ്ജസ്റ്റ് ആക്കും ഒരു ബോക്സ് ഇരുപത് പീസുകൾ ഉണ്ട് ആയിരം വരും നിങ്ങൾ ഇപ്പം കുറച്ച് അധികം എടുക്കുകയാണെന്നല്ലേ പറഞ്ഞത് അധികം എടുക്കുകയാണെങ്കിൽ അതെ അല്ലേ അപ്പോൾ നിങ്ങൾ അധികം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ബോക്സിന് വച്ചിട്ട് നൂറ് രൂപ വച്ച് കുറയ്ക്കും എന്തായാലും ഓ വന്നോളൂ നാളെ വന്നോളൂ അതെ അതെ അതെ ഓ ശരി ഓ ശരി എന്നാൽ നമുക്ക് നാളെ നേരിൽ കാണാം